എൻ്റെ പാചകവിധികൾ ഞാൻ വിശദമായിട്ടു തന്നെയാണ് പഠിപ്പിക്കാറ് ആദ്യം പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക ഞാൻ എല്ലാം കാണിച്ചു കൊടുത്താണ് പാചകവിധികൾ കൈമാറുന്നത് ആദ്യം പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാൻ പറയും പിന്നെ കടുക് വറക്കുന്നു പിന്നെ അതിന്റകത്തേയ്ക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റാൻ പറയുന്നു ഉള്ളിക്കും ഇഞ്ചിക്കും നന്നായിട്ട് മൂപ്പു കൂടുതലായതുകൊണ്ട് ആദ്യം ഇടാൻ പറയും എല്ലാം ഞാൻ ചെയ്തു കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ അതിന്റകത്തേയ്ക്ക് മൂത്തു വരുമ്പോൾ മസാലയും മുളകുപൊടി മല്ലിപ്പൊടി അങ്ങനത്തെ മസാലകൾ ചേർത്ത് മിക്സ് ആക്കുന്നു ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിന്റകത്തേയ്ക്ക് ടൊമാറ്റോ കട്ട് ചെയ്തു വച്ചത് ഇടണം അത് നന്നായി ഒടഞ്ഞു കഴിയുമ്പം അതിന്റകത്തേയ്ക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം റോസ്റ്റ് ചെയ്ത് നന്നായി തിളച്ചു വരുമ്പം തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുന്നു അതുകഴിഞ്ഞിട്ടത് സേവ് ചെയ്യുന്നു അവർക്ക് ടേസ്റ്റ് ചെയ്ത് അവരഭിപ്രായം ചോദിക്കുന്നു അങ്ങനെയാണ് ഞാൻ പൊതുവെ എല്ലാവർക്കും എൻ്റെ പാചകവിധികൾ കൈമാറുന്നത് എല്ലാവർക്കും കാണിച്ചുക്കൊടുക്കുന്നതാണ് പറഞ്ഞുകൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പം എന്നു ചിന്തിക്കുന്ന ആളാണ് ഞാൻ